ന്യൂഫോം റെസ്റ്റോറൻറ്റ് ആണോ കോഴിക്കോട് ആ അപ്പം ഞാന് രണ്ട് ദിവസം മുന്നെ കുറച്ച് ഫുഡ്ഡ് ഓർഡർ ചെയ്തിട്ട് ഇണ്ടായിരിന്നില്ലെ ആ ആ അൽഫാം മന്തി ചിക്കൻ ബിരിയാണി ഷവർമ റോൾ ഒക്കെ ആ അതെ അതെ അപ്പം പിന്നെ അതെ ഓർഡർ അതെ അത്രെണ്ണം തന്നെ അപ്പം എനി ഇന്ന് ഈവനിംഗ് ഒന്ന് ചെയ്തേരാൻ പറ്റുമൊ കൊണ്ടത്തരാൻ പറ്റുമൊ വീട്ടിലേക്ക് ആണോ ആ അങ്ങനെ ആണെ കൊണ്ടുതരുവാണേൽ ഉപകാരം ആയിരുന്നു അപ്പം ആ അന്ന് ഗസ്റ്റിന് ഒക്കെ ഭയങ്കരം ഇഷ്ടപ്പെട്ടു അപ്പം അവര് തന്നെ ഒന്നൂടെ വരുന്നുണ്ടേ അപ്പം അവര് ഇത് എല്ലാം കാണാൻ പോയതാ അപ്പം അവര് തന്നെ പറഞ്ഞു ഒന്നൂടെ അത് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നെ ആ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളുടെ ഫുഡ്ഡ് കാര്യങ്ങൾ ഒക്കെ അപ്പം അവര് വിളിച്ചു ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇണ്ടായിരുന്നു അപ്പം അത് ഒന്ന് ഓ എന്നാ അത് ഒന്ന് ഓർഡർ ചെയ്യോ എന്നാല് എന്നിട്ട് ഞങ്ങക്ക് ഒര് ഈവനിംഗ് ഒരു ഫൈവ് ഓ ക്ലോക്കിൽ ഒക്കെ അങ്ങ് കൊണ്ടുതരുവോ ആ ഓക്കെ എന്നാൽ അങ്ങന കൊണ്ടുതന്നാൽ മതി